ക്യാബ് ഏജൻസി അല്ലെ ഞാൻ കുറച്ച് മുന്നെ ഒരു ക്യാബ് പിന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെ പിന്നെ എനിക്കൊരു പിന്നെ ഇന്റർവ്യൂന് അത്യാവശ്യമായിട്ട് പോവാൻ വേണ്ടിയായിരുന്നു ആ അതെ അതെ അപ്പോൾ പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ അപ്പം അയാളോട് പത്ത് മണിയാകുമ്പമാണ് വരാൻ പറഞ്ഞത് ഇപ്പം പത്തരയായിട്ടും അയാള് ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് നോക്കി വിളിച്ച് നോക്കിയപ്പോൾ ആണങ്കിൽ പിന്നെ കോളെടുക്കുന്നില്ല ഇപ്പോൾ അത്യാവശ്യം ബ്ലോക്കിലോ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോളെടുതൊന്ന് അറ്റൻ്റെയ്ത് കാര്യം പറയുവാണെങ്കിൽ എനിക്ക് വേറെ വണ്ടി വിളിച്ച്പോകാമായിരുന്നു അപ്പോൾ ഞാൻ ഇത്രയും നേരം വിളിക്കാതിരുന്നത് എന്താന്ന് വച്ചിട്ടുണ്ടങ്കില് അതായത് ഞാനിപ്പം എന്തെങ്കിലും ഒരു വണ്ടി വിളിച്ച് പോകുവാണെൽ ചിലപ്പം അപ്പമായിരിക്കും അയാള് വരുന്നത് അപ്പം നമ്മളങ്ങനെ ഒരു ഇത് ചെയ്യരുതല്ലോ നമ്മളാ മാനേഷ്സ് കാണിക്കണമല്ലോന്ന് വിചാരിച്ച് ഇതാക്കുമ്പം നമ്മളോട് ഇങ്ങോട്ട് തിരിച്ച് ആ ഒരു മാനേഷ്സ് കാണിക്കണ്ടേ ഇപ്പോൾ എന്തെങ്കിലും വൈകിയിട്ടുണ്ടെങ്കിൽ നമ്മള് ജസ്റ്റ് ഫോണൊന്ന് അറ്റൻറ് ചെയ്തിട്ട് വരാൻ പറ്റില്ലാന്ന് പറഞ്ഞൂടെ ആ ഇനി ഇപ്പം നിങ്ങള് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഇനി ഇപ്പം ഞാൻ എന്തായാലും വേറൊരു വണ്ടി വിളിച്ചു പോകാൻ പോണു ഇപ്പം അയാള് വന്നാലും വന്നില്ലങ്കിലും അത് എന്റൊരു ഉത്തരവാദിത്തമല്ല പിന്നെ ഞാന് അഡ്വാൻസ് നിങ്ങൾക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തിരിച്ച് തരണം കേട്ടോ ആ ഓക്കെ